അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പതിനാല് നാല് ആയിരത്തിതൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇരുപത് പതിനൊന്ന് ആയിരത്തിതൊള്ളായിരത്തി തൊണ്ണൂറ് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഒന്ന് മുപ്പത് മൂന്ന് രണ്ടായിരം